ആ ഹലോ ഫർസാ റെസ്റ്റൊറന്റ് അല്ലേ ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് കുറച്ച് മുന്നേ കുറച്ച് ഫുഡ് ഐറ്റംസ് ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബിരിയാണി ഗീ റൈസ് ഇന്ന സാധനങ്ങളൊക്കെ എനിക്ക് പിന്നെ കുറച്ച് ഡെസേട്ടുകളും ഐസ് ക്രീം കേക്ക് അല്ലെങ്കിൽ ഹൽവ അങ്ങനെത്തെ സാനങ്ങൾ വേണ്ടിയിരുന്നു അവിടെ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയാണ് നിങ്ങളെ മെനുവിൽ ഉള്ളതെന്ന് പറഞ്ഞ് തരാമോ ആ ഞാനിതിന് മുന്നെ നിങ്ങളുടെ അടുത്തുനിന്ന് ഓഡർ ചെയ്തപ്പോൾ എനിക്ക് നല്ല അനുഭവമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് പിന്നെ നിങ്ങളതൊന്ന് ഒന്നുങ്കൂടെ ഒന്ന് വിശദീകരിച്ച് തരാമോ എനിക്ക് എനിക്ക് ഐസ് ക്രീമ് നിങ്ങളുടെ അടുത്ത് ഏതാണ് ബ്രാന്റ് ഉള്ളത് പിന്നെ ഡെസേട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞുതന്നാൽ എനിക്കതനുസരിച്ച് ഓഡ്റ് ചെയ്യാമായിരുന്നു പിന്നേ ഐസ്ക്രീമും വേണം ഹൽവയും വേണം കേയ്ക്കും വേണം കേക്ക് ഏതാണ് വാൻല അല്ലെങ്കിൽ സ്റ്റോബറി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണോ